ഇന്ത്യയിൽ ആരോഗ്യ സംരക്ഷണ സംവിധാനം വളരെ മോശമാണ് എന്നുള്ള കാര്യമാണ് എനിക്കു പറയാൻ വേണ്ടിയിട്ടുള്ളത് പ്രത്യേകിച്ച് കേരളത്തിലെ ആരോഗ്യ വകുപ്പ് എടുത്തു പറയാണെങ്കിൽ ഒരുപാടു നല്ല കാര്യങ്ങൾ ഒക്കെ കോവിഡ് സമയത്തൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഇതെല്ലാം ജനങ്ങളുടെ കണ്ണിൽ പൊടി പാറി ഇടാൻ വേണ്ടിയിട്ടു ചെയ്ത കാര്യങ്ങൾ തന്നെയാണ് ഒരു കാര്യം പറഞ്ഞു നോക്കട്ടെ ഈ അമേരിക്ക പോലുള്ള മറ്റു വികസിത രാജ്യങ്ങളിൽ പ്രിവൻറ്റേഷൻ ബെറ്റർ ദാൻ ക്യൂവർ എന്നു പറഞ്ഞു കൊണ്ടൊരു ചൊല്ലുണ്ട് എന്നു വെച്ചു കഴിഞ്ഞാൽ അവർ രോഗം വന്നതിനു ശേഷം അല്ല ചികിൽസിക്കുന്നത് രോഗം വരാതിരിക്കാൻ എങ്ങനെയാണെന്നുള്ള കാര്യമാണ് നോക്കുന്നത് നമ്മുടെ ഈ കേരളത്തിൽ തന്നെ ഈ വൃത്തിയുള്ള കേരളത്തിൽ ഇന്നെന്നു പറയാൻ പറ്റില്ല ശുചി ശുചിത്വ മിഷനൊക്കെ ഒരുപാട് ഒരുപാട് വലിയ വലിയ പോസ്റ്ററുകളും കാര്യങ്ങളൊക്കെ നമുക്കു കാണാറുണ്ട് പക്ഷെ നമ്മുടെ ഒരു സർക്കാർ ആശുപത്രികളിലെ ടോയ്ലറ്റിൽ ഒന്നു നോ പോയി നോക്കൂ വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് അവർ ആ ശൗചാലയങ്ങൾ പോലും കീപ്പ് ചെയ്തിരുന്നതു വളരെ വൃത്തികെട്ട രീതിയിലാണ് അവർ ആ ആശുപത്രി മെയിൻറ്റനൻസ് ചെയ്തു തരുന്നുള്ള ചെയ്യുന്നതെന്നുള്ള കാര്യമാണ് എനിക്കു മനസ്സിലായിട്ടുള്ളത് അതുപോലെ തന്നെ ആ ജനങ്ങൾക്ക് ഉപകാര പ്രദമായ ഒരു നല്ലൊരു സംവിധാനങ്ങളും ഈ നമ്മുടെ സർക്കാർ ആശുപത്രികളില്ല നമ്മുടെ ഈ ആശുപത്രികളിൽ ഈ പ്രധാനമായും വേണ്ടതെന്നു വെച്ചു കഴിഞ്ഞാൽ ഈ ഒരു ക്യൂ എങ്ങനെ കുറയ്ക്കാം എന്നുള്ളൊരു കാര്യം ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പത്തു മണിക്കാണ് ഒ പി ടൈം എങ്കിൽ ആൾക്കാർ ക്യൂ എടുക്കാൻ വേണ്ടിയിട്ട് ഒ പി ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ക്യൂ നിൽക്കാന്നുള്ള വന്നത് പുലർച്ചേ മൂന്നു മണിയ് മൂന്നു മണി തൊട്ടാണ് അപ്പോൾ വളരെ വലിയ വെല്ലുവിളി തന്നെയാണ് അതെന്നുള്ള കാര്യം അതു നമ്മളുടെ ഈ ആരോഗ്യ വകുപ്പ് ഇത്രത്തോളം വളർന്നിട്ടും ഇത്രത്തോളം ടെക്നോളജിയും ശാസ്ത്രം ഇത്ര ഇത്രത്തോളം വളർന്നിട്ടും സർക്കാർ ആശുപത്രികൾ ക്യൂ കുറയ്ക്കാൻ വേണ്ടിയിട്ടൊരു സംവിധാനം പോലും നമ്മുടെ ഈ കേരള സർക്കാർ കൊണ്ടു വരുന്നില്ല എന്നുള്ള കാര്യം തന്നെ ആണ് അതുപോലെ തന്നെ ചിലവു ഇ ഇത്രത്തോളം നമ്മൾ സർക്കാർ ആശുപത്രികളിൽ വൃത്ത് വൃത്തിയുടെ കാര്യത്തിലും അതുപോലെ തന്നെ മരുന്നിൻ്റെ ലഭ്യതയുടെ കാര്യത്തിലും കുറ്റം പറയുന്നുണ്ട് എങ്കിലും ചിലവ് സർക്കാർ ആശുപത്രികളിൽ വളരെ കുറവാണ് അതു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു അഭിമാനകരമായൊരു കാര്യമാണെന്നുള്ള കാര്യമാണ് പറയുന്നത് സത്യം പറഞ്ഞാൽ ഉപയോ മരുന്നില്ല എങ്കിൽ പോലും എന്നു വെച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം മരുന്നില്ലെങ്കിൽ പോലും ഉള്ള മരുന്നുകൾക്കെല്ലാം വില കുറവുണ്ടെന്നുള്ള കാര്യമാണു പറയാൻ വേണ്ടിയിട്ടുള്ളത് സാധാരണ ഒരു എക്സ്റേ എടുക്കുന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് ആശുപത്രിയിൽ വാങ്ങിക്കുന്ന ഇരുന്നൂറ്റി അൻപത് രൂപയാണ് പക്ഷെ നമ്മുടെ സർക്കാർ ആശുപത്രികൾ അതും വളരെ ചിലവു കുറവാണ് പത്തോ എൺപതോ രൂപയ്ക്ക് നമുക്ക് നമ്മുടെ എക്സ്റേ എടുക്കാം എന്നുള്ള കാര്യം ആണ് അതുപോലെ തന്നെ സി ടി സ്കാനിംങ്ങ് പോലെയുള്ള ഒരുപാട് ഒരുപാട് സ്കാനിംങ്ങുകൾ പോലും നമുക്കു തുച്ഛമായ വിലയിൽ നമുക്കത് എടുക്കുക എന്നുള്ള കാര്യമാണ് പിന്നെ സർക്കാർ ആശുപത്രികളിലെ സേവനം ഒരു പൗരനു ലഭ്യമാക്കണം എങ്കിൽ നല്ല രീതിയിൽ ലഭ്യമാക്കണമെങ്കിൽ അവിടുത്തെ ആരോഗ്യ വകുപ്പു നല്ല രീതിയിൽ മുൻ കരുതലുകൾ എടുക്കേണ്ട ഇരിക്കുന്നു ഞാൻ നേരത്തെ മുൻപു സൂചിപ്പിച്ചതു പോലെ പ്രിവൻറ്റേഷൻ ബെറ്റർ ദാൻ ക്യൂവർ എന്നു പറയുന്ന ഒരു രീതിയിലേക്കു നമ്മുടെ ഈ ഒരു ഇന്ത്യൻ ആരോഗ്യ സംരക്ഷണ മേഘലയും മാറുകയും വളരെ വളരെ മാറ്റങ്ങളായിരിക്കും മാറിക്കഴിഞ്ഞു വളരെ വളരെ മാറ്റങ്ങളായിരിക്കും നമുക്ക് ഉണ്ടാകാൻ വേണ്ടിയിട്ടു പോകുന്നത്